ഇപ്പം നോർമലി പണ്ടത്തെ പോലെ കലാ ശീലികളും നൃത്തം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കാണുക നല്ല കുറവാണ് ഇപ്പം നോർമലി എല്ലാവർക്കും ബ്രേക്ക് ഡാൻസ് അങ്ങനെ ഉള്ള പരിപാടികൾ കാണാനും വേറെ ഉള്ള പരിപാടികൾ അറ്റൻഡ് ചെയ്യാനുമാണിഷ്ടം ഇപ്പം കലാമണ്ഡലങ്ങളും എല്ലാം കുറവാണ് എല്ലായിടത്തും അപ്പോൾ ആളുകൾക്ക് ആളുകൾ കൂടുതലും വേറേ കാര്യങ്ങളിൽ ആണ് ഇൻവോൾവ്മെന്റ് പിന്നെ ഇവിടടുത്തൊരു ഇത് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട് അവിടെ അവിടെപ്പോയിരുന്നു അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലും പഴയ രീതിക്കുള്ള പാട്ടുകളും തബലകളും വയലിൻ ഗിറ്റാർ അതി ൻ്റെ ആ ഒരു ഈണങ്ങളില് അവര് ഡാൻസ് ചെയ്യുന്നതും നൃത്തം ചെയ്യുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അമ്പലങ്ങളില് ഉത്സവങ്ങൾ ഉത്സവങ്ങളില് ആണ് നോർമ്മലി ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മള് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാറ് പിന്നെ നമ്മളൊക്കെ ഞാനൊക്കെ യൂത്താണ് യങ്ങാണ് അപ്പോൾ നമുക്ക് ജനിച്ച് ഞാനൊക്കെ ജനിച്ച് വളർന്ന് ആ സമയത്തൊക്കെ ഇങ്ങനെ ഉള്ള പഴയ ശൈലികളും പഴയ കലാമണ്ഡലം ആ ഒരൂ എല്ലാം കുറവാണ് നോർമ്മലി അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണുന്നത് അമ്പലങ്ങളിലും ഉത്സവങ്ങളിലും ഒക്കെയാണ് ആ പിന്നെന്താ പറയുക ഇവിടെ അത് പഠിക്കാൻ താൽപര്യപ്പെടുന്ന കുറെ കുട്ടികളുവുണ്ട് കൂടുതലും അങ്ങനെ ഉള്ളത് പെൺകൊച്ചുങ്ങളാണ് അങ്ങനെ ഉള്ള ഡാൻസിൽ കൂടുതലും പഠിക്കുന്നത് ആൺപിള്ളേരും പഠിക്കുന്നവരുണ്ട് എന്നാലും കുറവാണ് പക്ഷേ അവരുടെ ആ ഒര് നൃത്തം ശൈലി അതെല്ലാം ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടിരിക്കാൻ